ഇന്ത്യ എന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ന് നമ്മളീ കാണുന്ന ഇന്ത്യ രൂപപ്പെട്ടത് ഒരുപാട് കാലത്തെ കഷ്ടപ്പാടും ഒരുപാട് കാലത്തെ പോരാട്ടങ്ങൾക്കും സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന ഒരിന്ത്യ രൂപപ്പെട്ട് നിൽക്കുന്നത് ഇപ്പം തന്നെ നമ്മൾക്ക് ചരിത്രത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഏറ്റവും അഭിമാനം തോന്നുന്ന ഒരു സന്ദർഭമാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ നേതാക്കൾ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി മുന്നിട്ട് നടത്തിയ ഒന്നാണ് നമ്മുടെ ദണ്ഡിയാത്ര ഉപ്പ് സത്യാഗ്രഹം എന്നിങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ പല കോണിലായിട്ട് പല പല രാ നാടുകളിൽ നിന്ന് പല പല ഭൂപ്രദേശങ്ങളിൽ നിന്ന് പല പല ജില്ലകളിൽ നിന്നും ഇന്ന് കാണുന്ന ഇന്ത്യ രൂപപ്പെടാൻ വേണ്ടി ഒരുപാട് മനുഷ്യർ രക്ത സാക്ഷികളായി ഒരുപാട് ആൾക്കാരുടെ ചോര പൊടിഞ്ഞ മണ്ണാണ് ഇന്ത്യ കോളനി ബ്രിട്ടീഷുകാർക്കെതിരെ അവരെ ഇവിടെ നിന്ന് കുടി ഒഴിപ്പിക്കാൻ വേണ്ടി അവരെ നമ്മൾ പുറത്താക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരെ അടിച്ച് പുറത്താക്കാൻ വേണ്ടി തന്നെ ഇന്ത്യയിലെ ഓരോ കുഞ്ഞ് കുട്ടിയും ഓരോ പിഞ്ചു പൈതലും ഇന്ത്യക്ക് വേണ്ടി പൊരുതാൻ വേണ്ടി ഇന്ത്യയുടെ മണ്ണ് നമ്മുടെ മണ്ണ് സ്വന്തമാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പോരാട്ടം ഏറ്റവും കൂടുതൽ സമരങ്ങളും കാഴ്ചവെച്ചത് ഇന്ത്യ എന്നൊരു രാജ്യം തന്നെ ആയിരിക്കും ബ്രിട്ടീഷുകാർക്കെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തിയത് ഇന്ത്യ എന്നുള്ള നമ്മുടെ ഈ കൊച്ചു രാജ്യം തന്നെ ആയിരിക്കും ഇന്ത്യയിലേറ്റവും കൂടുതൽ ആൾക്കാർ പുളകം കൊള്ളുന്നതും ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ ഏറ്റവും കൂടുതലും ആരാധനയോടെ കാണുന്ന ഒരാളാണ് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ഗാന്ധിജിയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യ എന്നുള്ളത് എത്ര കാലത്തേ പ്രയത്നമാണെന്നും നമുക്ക് മനസ്സിലാകും ഒരുപാട് നേതാക്കളതേ പോലെ ഉണ്ട് നമുക്ക് ഭഗത് സിങ്ങിനെ ഓർക്കുമ്പോഴും അതേപോലെ നെഹ്റുവിനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഇന്ത്യ എന്ന ആ ഒരു വലിയൊരു ചരിത്രത്തെ ഇന്ത്യ എന്ന വലിയൊരു വികാരമാണ് നമ്മൾ ഓരോ ഇന്ത്യക്കാരും മനസ്സിൽ കൊണ്ട് നടക്കുന്നത് ഇപ്പോഴും ദേശീയഗാനം നമ്മുടെ ദേശഭക്തി ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചോരയിലൂടെ ഓടുന്ന ഒരു ഇന്ത്യൻ ചോര ഒരിന്ത്യയുടെ ആ ഒരു വികാരം തന്നെ നമുക്ക് മനസ്സിലാകും എത്രയും നമ്മുടെ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വന്തന്ത്ര്യത്തിനു വേണ്ടിയിട്ടും ഒരു ഡെമോക്രറ്റിക്കായി ഏറ്റവും ജനാധിപത്യപരമായി മുന്നോട്ടു പോകുന്നൊരു രാജ്യം തന്നെയാണ് ഇന്ത്യ ഇന്ത്യയെ ആ ഒരു കാര്യത്തിൽ ഏതൊരാൾക്കും സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനും ഏതൊരാൾക്കും അവരുടെ വിശ്വാസങ്ങൾ മുന്നോട്ട് മുറുകി പിടിച്ച് മുന്നോട്ടു ജീവിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഏകരാജ്യം ഇന്ത്യ എന്നു തന്നെ നമുക്ക് പറയാൻ പറ്റും ഇന്ത്യയുടെ ജനാധിപത്യം അതേപോലെ ഇന്ത്യയുടെ ഭരണഘടന എന്ന് ഭരണഘടന എന്നുള്ളതും വേറൊരു സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റില്ല അത്രയും ജനങ്ങൾക്കു വേണ്ടി അത്രയും ഓരോ മനുഷ്യരെയും നമ്മൾ വിചാരിച്ച് ഓരോ മനുഷ്യർക്കും വേണ്ടി തയ്യാറാക്കിയതാണ് ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയിലെ നിയമങ്ങളും അങ്ങനെ തയ്യാറാക്കിയതാണ് ഇന്ത്യ എന്നുള്ള ചരിത്രം തന്നെ ഇന്ത്യയെക്കുറിച്ചുള്ള ചരിത്രം തന്നെ ഓർക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും